നമ്മുടെ വയനാട് ജില്ലയുടെ ഒരു പ്രശ്നം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പിന്നെ ഒരു കോമൺ ഏരിയകളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ആദിവാസികളുടെ വീട് നിർമ്മാണമാണെങ്കിൽ അതിലൊരുപാട് അഴിമതി കാണിക്കുന്നു അവർക്ക് വേണ്ട സൗകര്യത്തിൽ വീട് കിട്ടുന്നില്ല ഇല്ലെങ്കിൽ ആ ഒരു വീട്ടിൽ അഴിമതി കാണിച്ച് അത് മറ്റുള്ളവർക്ക് ഫണ്ട് തിരിച്ച് കൊടുക്കുക അവർക്ക് ഫണ്ട് പാസ്സായിക്കഴിഞ്ഞാൽ അവരുടെ എന്താ പറയുക മറ്റുള്ളവരുടെ സ്വാധീനംകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് കൈക്കലാക്കുക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ വയനാട് ജില്ലയിൽ നടക്കാറുണ്ട് അതായത് ഭവന പദ്ധതിയിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഒരു എന്താ പറയുക അത്രയും പിന്നെ ബുദ്ധിമുട്ടിയ രീതിയിൽ പോകുന്നത് അതുപോലെതന്നെ ആണ് ആരോഗ്യമേഖല ആരോഗ്യ മേഖലയിൽനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഗവൺമെൻ്റ് ഹോസ്പിറ്റലിൽ പോയിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ട് ഡോക്ടേഴ്സ് ഉണ്ടാവാത്ത ബുദ്ധിമുട്ട് ഇല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് നമ്മൾ അത്രയും ഫെസിലിറ്റീസ് ഇല്ലാത്ത ഹോസ്പിറ്റലുകൾ കാര്യങ്ങളൊക്കെയാണ് വയനാട് ജില്ലയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ഇപ്പം ആരോഗ്യ മേഖലയെടുത്താലും പിന്നെ അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും ശിശുസംരക്ഷണ വിഭാഗത്തിലും എല്ലാത്തിലും തന്നെയെന്നു പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ വയനാട് ജില്ലയിലുള്ള ആൾക്കാർ അനുഭവിക്കുന്നുണ്ട് അതുപോലെ വീടില്ലാത്തവർ ഒരുപാട് പേര് നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ കാണുന്നുണ്ട് നമ്മളാരും ആരെയും പരസ്പരം സഹായിക്കുകയോ സഹകരണങ്ങളോ ഒക്കെയുണ്ടെങ്കിലും അതൊക്കെ ഒരു സ്വാധീനം ചെലുത്തിക്കൊണ്ടുള്ളതാണ് അല്ലാതെ ഒരിക്കലും ഒരു സ്വന്തം ഇഷ്ടത്തിൻ്റെ പുറത്തോ ഇല്ലെങ്കിൽ അവർക്ക് കറക്ട് ആയിട്ട് ആനുകൂല്യങ്ങൾ ലഭിക്കുകയോ കാര്യങ്ങളോ ഒന്നുംതന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് വളരെ ചുരുക്കമായിട്ടാണ്